ഇന്നിപ്പോൾ നിലവിൽ എൻ്റെയൊരഭിപ്രായത്തിൽ ഉള്ളത് റോഡുകളാണ് കേരളത്തിലെ റോഡുകളായാലും ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളിലത്തെ ചില റോഡുകൾ വളരെ ശോചനീയാവസ്ഥയിലാണ് ഇന്നും ഉള്ളത് എലെക്ഷൻ വരുന്ന സമയങ്ങളിൽ മാത്രം അവർ റോഡിൽ എന്തേലും പൊട്ടും പൊടികളും എല്ലാം ശരിയാക്കുന്നു അതൊരു നല്ല രീതിക്ക് അല്ലെങ്കിൽ ഒരു ഗുണമേന്മയോട് കൂടിയിട്ടുള്ള ഒരു റോഡിൻ്റെ പണികൾ ആയിരുന്നു അല്ല അവർ ചെയ്യുന്നത് ജനങ്ങളുടെ കണ്ണിൽ വെറുതെ പൊടിയിട്ട് വോട്ടും ആ ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ട് വെറും പ്രഹസനം മാത്രമാണ് ഇന്നും സർക്കാരിൻ്റെ ഒരിതിലൂടെ ഇന്ന് ചെയ്യുന്നത് ഇന്നും പല റോഡുകൾ എന്തിന് ദേശീയപാതകൾ അടക്കം ഇന്ന് കുഴികളും വിധം അങ്ങനത്തെ പല മോശം വശങ്ങൾ ഇന്നും നില നിൽക്കുകയാണ് റോഡ് പണി ചില ഉൾപ്രദേശങ്ങൾ റോഡ് പണി പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതു പോലെയാണ് വാട്ടർ അതോറിറ്റികളും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലെ എല്ലാം അതു പൊളിച്ച് സൈഡിലൂടെ പൈപ്പുകളും മറ്റെല്ലാം എല്ലാം ഇടാൻ നോക്കുകയാണ് അപ്പോൾ വീണ്ടും റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥ തന്നെയാണ് അത് കാലങ്ങളായിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ റോഡ് പണിയെടുക്കുന്നത് തന്നെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് റോഡ് പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ പൈപ്പ് അതും ഇതും പറഞ്ഞിട്ടങ്ങനെ പൊളിക്കാനും തുടങ്ങുന്നതാണ്